ഹലോ ടോൾ സാർ അല്ലേ ഞാൻ സാറിന്റെ സിനിമ കണ്ടിട്ടൊരു വലിയ ഫാൻ ആയിരുന്നു എന്റെ പേര് എലിസബത്ത്

ഓക്കെ ഓക്കെ ആ ആ ശ ആ ഓക്കെ അപ്പം ടീച്ചേഴ്സ് ഒക്കെ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ ഇതിന് സപ്പോർട്ട് ആണോ സാറിന്റെ ഈ കാര്യത്തിനൊക്കെ ഫോൾ ആ ഓക്കെ സാർ കോളേജിലും അപ്പം പുതു ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ട് ആയിരിക്കുമല്ലോ

ഓക്കെ സാർ എന്നോട് ഇത്ര നേരം സംസാരിക്കാൻ കാണിച്ചതിന് നന്ദി കേട്ടോ